ഇപ്പോൾ ഞങ്ങളുടെ നാട്ടില് നോക്കുകയാണെങ്കില് കുറെ അധികം കോളേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ രീതിയിലും ഗവണ്മെന്റിന്റെ ആണെങ്കിലും പ്രൈവറ്റായിട്ടാണെങ്കിലും ഒരുപാട് കോളേജ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടേത് ഇപ്പം നോക്കുവാന്നുണ്ടെങ്കില് തന്നെ ഫറുക് അതുപോലെ തന്നെ ഐ ഐ ഐ റ്റി വരുന്നുണ്ട് അതുപോലെ മലബാര് ക്രിസ്ത്യന് കോളേജ് കാര്യങ്ങള് പിന്നെ ഗവണ്മെന്റ് ആര്ട്സ് ആന്ഡ് സയന്സ് കോളേജ് വരുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി കോളേജ് കാര്യങ്ങളാണ് വരുന്നത് ഇപ്പം നോക്കുവാണെങ്കില് തന്നെ എല്ലാ രാജ്യത്തു നിന്നും എല്ലാ സ്ഥലം സ്ഥാനങ്ങളിലാണെങ്കിലും എല്ലായിടത്തുനിന്നും ആള്ക്കാര് വന്നു പഠിക്കുകയും ഇപ്പം എവിടുന്ന് നോക്കിയാലുമുള്ള ആള്ക്കാർ കാര്യങ്ങളൊക്കെ വരുന്നു ഇപ്പം കോളേജുകളിലേക്ക് ഇത്രയധികം ആള്ക്കാർ കാര്യങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നോക്കുവാണെങ്കില് കുറെ ടൂ ടൂറിസ്റ്റ്കളും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പഠിത്തത്തിനും കാര്യങ്ങള്ക്കായിട്ടും ആണെങ്കിലും എല്ലാസ്ഥലങ്ങളില് നിന്നും ആള്ക്കാർ അറിയാതെ ഇത്രയധികം ആള്ക്കാർ ഇങ്ങനെ ഒഴികിവരുന്നൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഇവിടുത്തെ എന്ന് പറയുമ്പോള് അത്രയും വികസനവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണെങ്കിലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിലെ കോളേജുകളാണെങ്കില് തന്നെ ഉള്ളതെല്ലാം അത്രയും ഫേമസ് കാര്യങ്ങളാണ് അതുപോലെ കാലിക്കറ്റ് യുണിവേഴ്സിറ്റീൻ്റെ അണ്ടറില് വരുന്ന ഇഷ്ടം മാതിരി കോളേജ് കാര്യങ്ങളാണ് വരുന്നതും ഒട്ടനവധി കോഴ്സുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരോന്നിനുമായിട്ട് സെപെറേറ്റ് സ്റ്റെപെറേറ്റ് വരുന്ന കോഴ്സ് ഇതുകളും കാര്യങ്ങളൊക്കെയായിട്ടും റ്റി ഡി എസ് ആയിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെയും ഒക്കെയായിട്ട് ഇങ്ങനെ സെപെറേറ്റിലി കോളേജ് കാര്യങ്ങളൊക്കെ അതും അതാത് ലോക്കാലിറ്റികളിലും അതൊക്കെയായിട്ട് ബേസ്ഡ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഓരോ ഇതിന്റെ അനുസരിച്ചും ആര്ടിസിന്റെയും ഇതൊക്കെയനുസകരിച്ചിട്ടണെങ്കിലും ഗവണ്മെന്റിന്റെ ആണെങ്കിലും മെഡിക്കല് കോളേജുവഴിയാണെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് പഠന ത്തിനുവേണ്ടിയിട്ടുള്ള സാങ്കേതികകളും ഒട്ടനവധി കോളേജുകളും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് എല്ലാം തന്നെ ഇപ്പം ഫറുക് കോളേജ് ആണെങ്കിലും അത് തന്നെ അത്യവശ്യം നല്ല ഫേമസ് ഒരു കോളേജും കാര്യങ്ങളും ആണ് അതുപോലെ ക്രിസിത്യന് കോളേജും കാര്യങ്ങളാണെങ്കില് മാക്സും സയന്സുമാണെങ്കിലും എല്ലാം തന്നെ അത്രയും ഫേമസ് കാര്യങ്ങളായ കോളേജ് കാര്യങ്ങളായാണ്